എൻ്റെ തോട്ടത്തിലെന്ന് പറയാൻ കുറെ തോട്ടം ഒന്നുമില്ല ഒരു പതിനഞ്ച് സെൻറ്റ് ഭൂമിയേ ഉള്ളു അപ്പം അവിടെ നമ്മള് എന്താ പറയുക കുറച്ച് അതായത് ഓവറ് പൊക്കം വയ്ക്കാത്ത തെങ്ങ് ഒക്കെ ഈ കർഷക സംഘത്തിൽ നിന്ന് ഒക്കെ കിട്ടുകയില്ലെ അവിടുന്നാണ് ഞാൻ മേടിച്ചത് അപ്പം അവിടുന്ന് മേടിച്ചിട്ട് അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് മൂന്നാലഞ്ചെണ്ണം അത്രേയുള്ളു അവിടുന്നിങ്ങനെ നമുക്കിങ്ങനെ ഒരു ഒരു വർഷം കൂടുമ്പോൾ ഇങ്ങനെ പല ചെടികളൊക്കെ കിട്ടുമല്ലൊ അപ്പോൾ അതൊക്കെ കൊണ്ട് നടും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ പരിസ്ഥിതി ദിനം അല്ലേ ജൂൺ അഞ്ച് ആ സമയത്ത് കുട്ടയേ കിട്ടുമ്പഴും അങ്ങനെ ഉള്ള സമയത്തൊക്കെ നമ്മൾ അത് കൊണ്ടുനടും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ സമയത്ത് നമുക്ക് പല ചെടികളും കിട്ടും അതായത് ജാതിക്ക പേരയ്ക്ക നെല്ലിക്ക മാങ്ങ ചക്ക അങ്ങനെയുള്ള അതായത് ചക്കയെന്ന് വെച്ചാൽ വെറൈറ്റി ചക്ക പിന്നെ കുരുമുളകിൻ്റെ അങ്ങനെ എല്ലാം കിട്ടും അതൊക്കെ നമ്മള് അതായത് ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നടും പിന്നെ ഞാൻ ഞങ്ങള് അതായത് നമ്മളിങ്ങനെ വഴിയിലൊക്കെ പിന്നെ ഇതൊക്കെയുണ്ടല്ലോ അപ്പോൾ പുതിയതായിട്ട് കുറെ ചെടികളൊക്കെയുള്ള കടകളും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലൊ അവിടുന്നൊക്കെ വഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇഷ്ട്ടപ്പെടുന്നുണ്ടെങ്കില് അങ്ങനെ കണ്ടിട്ട് മേടിക്കാറുണ്ട് അങ്ങനെ ഒക്കെയാണ് എൻ്റെ തോട്ടത്തിലെ ചെടികള് ഞാൻ പരിപാലിക്കാറ്